ആ ഹലോ ഗുഡ് ഈവനിംഗ് ആ അതെ പറഞ്ഞോളു ഏതാണ് മോഡൽ എക്സ് ടൂ ഹൺഡ്രഡ് ആ ഓക്കെ എ റേറ്റ് നമുക്ക് എൺപത് ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഓഫർ ഉള്ളതുണ്ട് വിഷു ഈസ്ടറൊക്കെ കഴിഞ്ഞല്ലോ അപ്പം അതിൻ്റെ ഒക്കെ ഓഫർ ഉള്ളതു കൊണ്ട് നമുക്ക് അതിൻ്റെ ഓഫറുണ്ട് അ അ ആ ആ ആ ആ എൺപത് അതിൻ്റെ ഇതാണ് നമുക്ക് മോഡൽ ഫസ്റ്റും ഉണ്ട് സെക്കൻ്റും ഉണ്ട് അപ്പം അതനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് ആ റേറ്റിൻ്റെ ഇതനുസരിച്ചിപ്പോൾ ഈ ഒരു മാസം കൂടിയേ ഉള്ളു വിഷുവിൻ്റെയും ഈസ്റ്റേറിൻ്റെ ഒക്കെ ഓഫർ ആ ആ ആ ഇൻസ്റ്റാൾമെൻ്റൊരു മൂവായിരത്തി ശില്ലാനം രൂപ വെച്ചടക്കേണ്ടി വരും മാസം മാസം നമ്മൾ ലോ ലോൺ എടുക്കുന്നത് അത് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് തീർക്കാം മുപ്പത്തി നാല് ആ ആ

ആ നല്ല കമ്പനി തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഉണ്ട് സെക്കൻ്റ് ഉണ്ട് പിന്നെ ഏതു കളറാണ് വേണ്ടത് എല്ലാ കളേഴ്സും ഉണ്ട് നമുക്ക് ആ അവൈലബിളാണ് യെല്ലോ കളറിന് ആ ആ അതൊക്കെ ഉണ്ട് ആ നമുക്ക് എല്ലാ കളർ ആ ആ അവൈലബിളാണ് ആ

മെയിനായിട്ട് ഐ ഡി പ്രൂഫ് ഏതെങ്കിലും ഒന്നു കൊണ്ടു വന്നിരിക്കണം ഐ ഡി പ്രൂഫ് ഉണ്ടാകണം പിന്നെ മൂന്ന് ഫോട്ടോസ് വേണം ആ മൂന്ന് ഫോട്ടോസ് വേണം പിന്നെ അതു മാത്രം മതി ഐ ഡി പ്രൂഫ് ക എൻ്റെ നിർബന്ധമായിരിക്കണം കേട്ടോ ആ ഐ ഡി പ്രൂഫ് ഏതെങ്കിലും ഒന്ന് വേണം ആ ആ ആ മൂന്ന് ഫോട്ടോസും നിർബന്ധമാണ് ആ ആ അതു മാത്രം മതി പിന്നെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ് ആ ലോൺ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കിട്ടും ആ ആ ആ കിട്ടും

ഞങ്ങളുടെ ഓഫീസ് എറണാകുളം വൈറ്റിലയില്ലേ ആ വൈറ്റില വൈറ്റില ഭാഗത്തായിട്ടാണ് വരുന്നത് ആ നിങ്ങൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ ഈ മാസം തന്നെ വരാം കേട്ടോ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേറ്റ് അതനുസരിച്ച് കൂടി വരും ആ ആ ആ രണ്ട് ദിവസത്തിനുള്ളിൽ വന്നാൽ മതി ആ ആദ്യ നമ്മളൊരു ഫൈവ് തൗസൻ്റ് കയ്യിലുള്ളതനുസരിച്ച് നമ്മളടച്ചാൽ മതി ആ ആ ആ ബാക്കി ഇൻസ്റ്റാൾമെൻറ് ആക്കാം ആ അങ്ങനെയും ചെയ്യാം നമുക്കതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ആ ആ ആ ഈ മാസം തന്നെ വരണം കേട്ടോ ആ ആ ആ ആ ആ ആ ഇല്ല ഇല്ല ഐ ഡി പ്രൂഫും ഈ മൂന്ന് ഫോട്ടോസും അത് മസ്റ്റാണ് ആ ആ ആ

ആ ബൈക്ക് ആ എല്ലാം ചെയ്യുന്നുണ്ട് ബൈക്കെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ടൂ വീലേഴ്സും അവൈലബിൾ ആണ് ഇവിടെ ആ ആ ആ ആ ആ ഓക്കെ മാം ആ ഓക്കെ മാം താങ്ക് യൂ ആ ആ താങ്ക് യൂ ആ